ഇപ്പോൾ പാലക്കാട് ജില്ലയിൽത്തന്നെ ഒരുപാട് പേർക്ക് വീടില്ലാത്തവരുണ്ട് അതേപോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ ഒരുപാട് സന്നദ്ധസംഘടനകളൊക്കെ നിലവിലുണ്ട് അതിപ്പോൾ സേവാഭാരതി ആണെങ്കിലും അതേപോലെ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ട് ഇവരെൻ്റെ ഒക്കെ സന്നദ്ധ സേവനങ്ങളും കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നല്ല രീതിയ്ക്ക് പാലക്കാട് ജില്ലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അപ്പോൾ അപ്പോൾ വൃദ്ധസദനങ്ങളാണെങ്കിൽ വൃദ്ധസദനങ്ങളിൽ ആരും വഴിയോരത്ത് കിടക്കേണ്ട അവസ്ഥ വരുന്നില്ല എല്ലാവരും വൃദ്ധസദനങ്ങളിലാണ് ആരൂമില്ലാത്തവരെ വൃദ്ധസദനങ്ങളിലെത്തിക്കാറുണ്ട് അതേപോലെ ശിശു സംരക്ഷണത്തിന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വച്ച് കൊടുക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ചാരിറ്റബിൾ ട്രൂസ്റ്റും അതേപോലെ മൃഗസംരക്ഷണമാണെങ്കിൽ മൃഗസംരക്ഷണവും ഹെൽത്ത് ഇതിൻ്റെ എല്ലാം മറ്റേ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള സംഘടനകളാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുന്നോട്ട് പോകുന്നതും നല്ല രീതിയിൽ തന്നെയാണ്